ഹലോ എ ബി സി ഹോട്ടലല്ലെ ആ ഞാനൊരു ഓഡറ് പ്ലെയിസ് ചെയ്തിരുന്നു സ്വിഗ്ഗിയിൽ നിന്ന് ആ ഓഡറ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ എനിക്കാ ഓഡർ വന്നപ്പോൾ ഡിഷ് മാറിപ്പോയിരുന്നു പിന്നെ ആ പാക്കിങ്ങിലും ഞാനത്ര സാറ്റിസ്ഫൈഡല്ല എൻ്റെ ഓഡർ വന്നപ്പോഴേക്കും എനിക്കത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ എനിക്കിനി ഓഡറ് റിട്ടേൺ ചെയ്യണമായിരുന്നു അപ്പോൾ നിങ്ങൾടെ റിട്ടേൺ പോളിസിയെപ്പറ്റി കൂടുതലറിയാൻ വേണ്ടിയായിരുന്നു കോൾ ചെയ്തത് ആ അപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്കീ ഓഡറ് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്നാണോ ഓ അപ്പോൾ നിങ്ങൾ ഐറ്റം റിട്ടേൺ എടുക്കും ആൻഡ് ഞാൻ പേ ചെയ്ത എമൗണ്ട് എനിക്ക് റിട്ടേൺ ചെയ്യും അല്ലെ ഓക്കേ ഓക്കേ ഞാൻ ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഓക്കേ താങ്ക് യൂ